എനിക്കുണ്ടായ ഒരു ബിസിനസ്സ് അനുഭവ പാഠമാണിത് വിശ്വാസം നൽകുമ്പോൾ വിലയുരുത്തൽ കൂടി വേണം പല സംരംഭങ്ങൾ തിരിച്ചറിയുന്നത് ഇതിനു ശേഷമാണ് പങ്കാളിത്തം വിതരണക്കാർ ക്ലൈൻറുകൾ ജീവനക്കാർ എന്നവരോട് അതിവിശ്വാസം വച്ചു ചതിയാകുന്നതാണു പതിവ് അതിനാൽ കരാറുകൾ എഴുതി വയ്ക്കുക രേഖകളെ പ്രാധാന്യമാക്കുക ഓരോ ഇടപാടിനും സുതാര്യത വേണം പിന്നെ വഞ്ചനയ്ക്കു സാധ്യതയുള്ള പ്രധാന മേഖലകൾ പണമിടപാടുകളാണ് മുൻകൂർപ്പണം വാങ്ങുന്നവർ പിന്നീടുള്ള ഡെലിവറി ചെയ്യാതെ മുങ്ങാം അതുപോലെ വ്യാജ ഇൻവോയ്സുകൾ വരാം പിന്നെ ഷെയർ ഹോൾഡിംഗ് പങ്കാളിത്തം തുടങ്ങിയവ വഞ്ചനമേഖല സാധ്യതകളിൽപ്പെടുന്നു ജീവനക്കാരുടെ വിവര ചോർച്ച അതൊരു വലിയ പ്രശ്നം തന്നെയാണ് വ്യാജകട ക്കാരും ഇടനിലക്കാരും വ്യാജ സന്ദർശകർ പേരു പറഞ്ഞ് ഓഫറുകൾ ഫേക്ക് ബിസിനസ്സ് കാർഡുകൾ തുടങ്ങിയവ ഉണ്ടാക്കുന്നവരെയും ശ്രദ്ധിക്കാം വഞ്ചന ഒഴിവാക്കാൻ നമ്മൾ കരുതേണ്ട മുൻകരുതലുകൾ എല്ലാ ഇടപാടിനും എഴുതിത്തരുന്ന കരാറുകൾ ഉണ്ടാകണം ബാഗ്രൗണ്ട് വെരിഫിക്കേഷൻ പങ്കാളികൾ ക്ലൈന്റുകൾ വിതരണക്കാർ തുടങ്ങിയവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക അവരെ പഠിക്കുക ബാങ്ക് ട്രാൻസ്ഫർ മാത്രം ഉപയോഗിക്കുക പണമിടുപാടുകൾ രേഖപ്പെടുത്താനായിട്ട് ഡാറ്റാ സെക്യൂരിറ്റിക്കായി ക്ലൗഡ് ഉപയോഗിക്കുക ടി പി വ്യവസ്ഥകൾ ഉപയോഗിക്കുക ഏറ്റവും അവസാനം ഭാഗ്യത്തിലല്ല പരിരക്ഷയിൽ വിശ്വസിക്കുക